ഞങ്ങൾ കൂടുതലായിട്ടും കിണറ്റിലെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് അത്രക്കിതായിട്ട് വേനൽക്കാലമൊക്കെ വന്ന് തീരെ വെള്ളം അങ്ങനെ കിണറ്റിലെ വെള്ളം വേനൽക്കലാകുമ്പം കുറയോല്ലോ അപ്പോൾ അങ്ങനുള്ള ടൈമിൽ മാത്രമാണ് ജപ്പാനീസ് പദ്ധതിയിലെ ടാപ്പ് വെള്ളമില്ലേ അത് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ അതിനൊരു ഒരു ബ്ലീച്ചിൻ്റെ സ്മെല്ലും ആ ഒരു ചൊവയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ അടുക്കളാവശ്യത്തിനോ അങ്ങനെ കുടിക്കാനൊന്നും ഉപയോഗിക്കാറില്ല അലക്കാനുള്ള ആവശ്യം പിന്നെ കുളിക്കാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരിക്കലും കിണറ്റിലെ വെള്ളം കുടിച്ച് ശീലമുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു ടാപ്പിലെ വെള്ളമായിട്ട് ഒരിക്കലും കുടിക്കാനൊന്നും പൊരുത്തപ്പെട്ട് പോകാനെ തീരെ കഴിയത്തില്ല അത്രയ്ക്ക് നമ്മൾ കഷ്ട്ടപ്പാട് കാരണമാണ് നമ്മളതൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത് അത് വേനൽക്കാലം അങ്ങനെ തീരെ വെള്ളമൊക്കെ കിട്ടാതിരിക്കുമ്പോൾ അലക്കാനും ഇതാക്കാനും ഒക്കെ ഉള്ളോരാവശ്യത്തിന് വേണ്ടീട്ടാണ് ടാപ്പിലെ വെള്ളം ഉപയോഗിക്കുന്നത് ഞങ്ങൾ കൂടുതലായിട്ടും കിണറ്റിലെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് നല്ല ശുദ്ധമായ ജലം തന്നെയാണ് പക്ഷേങ്കില് ഈ ഒരു മണം ഒരു ബ്ലീച്ചിൻ്റെ ഒരു മണമൊക്കെ പിടിക്കാതെ അങ്ങനെ പിടിക്കുന്നവരുണ്ടാകാം പക്ഷേ എങ്കിൽ ഇവിടെ നമുക്കൊന്നും അങ്ങനെ അത് പിടിക്കത്തേ ഇല്ല കിണറ്റിലെ വെള്ളം കുടിച്ച് ശീലമായത് കൊണ്ട്